ഇപ്പോൾ ആ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്തൊരു സവിശേഷതയൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സംസ്ഥാനത്ത് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കണ്ടു വരുന്നത് ഫോറെസ്റ്റ് ഏരിയ തന്നെയാണ് അപ്പോൾ കാട് പറഞ്ഞാൽ തന്നെ വായനാട്ടിലിപ്പോൾ എന്താപറയാ വായനാട്ടിലിപ്പോൾ ആൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തന്നെ ഫോറെസ്റ്റാണ് കൂടുതലായിട്ടും അപ്പോൾ എല്ലാവരും ഇപ്പോൾ വയനാട്ടിലേക്ക് വരുന്ന തന്നെ കാട് കാട്ടിലെ മൃഗങ്ങൾ അതിനെയൊക്കെ കാണുന്നതിന് വേണ്ടീട്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് കാരണം വായനാട്ടിലിപ്പോൾ എല്ലായിടത്തുമുള്ള കാട്ടിലും മിക്ക മൃഗങ്ങളും ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം കാണുന്നതിനും അതിൻ്റെയൊക്കെ നേരിട്ട് കണ്ട് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒക്കെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടൊക്കെയായിരിക്കും കുറെ ആൾക്കാരൊക്കെ വയനാട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ വായനാട്ടിലെന്ന് പറയുമ്പോൾ കുറെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടത്തെ രീതികളും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ എന്തപറയാ അതൊക്ക പരിചയപ്പെടാനും അറിയാനൊക്കെയായിട്ട് കുറെ ആൾക്കാർ അങ്ങനെയും വരുന്നുണ്ട് പിന്നെ ടൂറിസ്റ്റ് പ്ലേയ്സോക്കെ വയനാട്ടിൽ ഒരുപാടുണ്ട് ഇപ്പോൾ എന്താപറയാ ഏ ചെമ്പ്ര പീക് എന്ന ഒക്കെ പറയുന്ന മേപ്പാടി സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ മോളിൽ എന്തപറയാ ഒരു ല ലൗ ചിഹ്നത്തിൻ്റെ ഷെയ്പ്പിലായിട്ടൊരു ലെയ്ക്കും കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ കാണാനൊക്കെ ആയിട്ടാണ് വയനാട്ടിലേക്ക് എന്തപറയാ കുറേ ആൾക്കാർ വരുന്നത് ഇപ്പോൾ നമ്മളെ സംസ്ഥാനത്തിലെ ചില സവിശേഷതകൾ എന്നൊക്കെ പറയുവാനാണെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മെയിനായിട്ട് പറയാൻ ഇതൊക്കെയാണ് ഉള്ളത്